ജലക്ഷാമം പ്രത്യേകിച്ച് വേനൽകാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ പല കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ് വീട്ടിലെ ആ കാര്യങ്ങൾ നടത്തുവാൻ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ജലം ആവശ്യമാണ് പക്ഷേ വേനൽകാലത്ത് കടുത്ത ജലക്ഷാമം കാരണം പല കൃഷി സ്ഥലങ്ങളും വളർച്ചയിൽ ആകുന്നതും പലരും പഞ്ചായത്തിൽ നിന്നും പൊതു കെണറിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു അത് ആരോഗ്യപരമായിട്ട് തന്നെ അത്രയേറെ ദോഷങ്ങൾ ഉളവാക്കുന്നതും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യും കൂടുതൽ ജലക്ഷാമം നേരുന്നതും നേരിടുന്നത് വഴി കുട്ടികൾക്ക് വെള്ളത്തിൻ്റെ അളവ് അവർടെ ശരീരത്തിൽ കാണുന്നതും അത് രോഗത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും ജലക്ഷാമം മാറ്റിയെടുക്കാനുള്ള നടപടികൾ പഞ്ചായത്തുകൾ വഴി ചെയ്യേണ്ടതാണ്